നിയമപരമായ പ്രശ്നങ്ങളൊക്കെ കോടതി മുഖാന്തരമാണ് പിന്നെ ചെയ്യുക കൈകാര്യം ചെയ്യാറുള്ളത് ഞങ്ങള് ഭൂമി സംബന്ധമായ കാര്യങ്ങളായാലും ഇപ്പോള് എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു ജോലിയെ ജോലിക്കു പോയിരുന്നു ഞാന് പക്ഷെ അവിടെ വേതനം ജോലിക്കു പോകുന്നതിന് അനുസരിച്ച് വേതനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോള് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാന് കോടതിയെ സമീപിച്ചിരുന്നു കോടതിയില് കേസ് കൊടുത്തിരുന്നു കേസ് കൊടുത്തിട്ട് അത് അതെ പിന്നെ വിധിയായി എനിക്ക് എൻ്റെ വേതനം കിട്ടി പിന്നെ അതുപോലെതന്നെ ഭൂമി സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങള് ഉണ്ടായിരുന്നു കുടുംബത്തിലായിട്ട് അപ്പോള് അത് കുടുംബത്തില് കുറച്ച് പ്രശ്നങ്ങള് ഭൂമി സംബന്ധമായ കാര്യങ്ങള് ഉണ്ടായിരുന്നു അപ്പോള് അത് കുടുംബ കോടതിനെയാണ് ഞാൻ സമീപിച്ചത് സമീപിക്കാറ് അങ്ങനെ കേസ് കൊടുത്ത് കുറച്ച് ഭൂമി തർക്കം നിലവില് ഉണ്ടായിരുന്നു അത് കുറച്ച് സ്ഥലം സ്ഥലത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് എന്താണ് പറയുക അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുടുംബ കോടതീനെ സമീപിച്ചിരുന്നു അങ്ങനെ അത് കൊടുത്ത് കുടുംബ കോടതി വഴി എനിക്ക് പിന്നെ ഇതായിക്കിട്ടി സ്ഥലം ശരിയായിക്കിട്ടി അങ്ങനെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും കോടതിയെ തന്നെയാണ് ആശ്രയിക്കാറ് അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിന്നെ എന്താണു പറയുക വേതനം വേതനം കിട്ടാനുള്ള ഇതാണെങ്കിലും കോടതീനെ സമീപിച്ചു കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എന്താണ് കുടുംബ കോടതിയില് തന്നെയാണ് ആശ്രയിക്കുക നിയമവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും കോടതിയെ തന്നെയാണ് സമീപിക്കാറ്